വിനോദ സഞ്ചാരികൾക്ക് പൊതുവെ കേരളത്തിൽ വന്ന് കഴിഞ്ഞാൽ ന്താ ഗ്രാമം ബോ ബോട്ട് വയലുകൾ തോടുകൾ തെങ്ങിൻതോപ്പുകൾ പഴയ പഴയ പരമ്പരാഗത കലകൾ തെയ്യം കഥകളി കുച്ചുപ്പുടി അങ്ങനത്തെ ഓരോരോ കലകൾ ഇങ്ങനെയൊക്കെയുഉള്ള കാര്യങ്ങളാണ് അവർക്ക് കൂടുതലും കേരളത്തീ വന്നുകഴിഞ്ഞാൽ കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടും കേരളത്തിൽ കേരളത്തിൻറ്റെ ഒരു സൗന്ദര്യം അവർക്ക് എന്താണെങ്കിലും ഒരു പുറത്ത് ഫ് ഫോറിൻ കൺട്രീസിലൊന്നും കിട്ടത്തില്ല അവിടെ ബിഗ് സിറ്റിയെക്കെ ആയതുകൊണ്ടെന്നെ ബിൽഡിംഗ്സ് പൊലൂഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ കേരളത്തെ വെച്ച്നോക്കുമ്പം അതിനൊരു കേരളീയത മനോഹാരിത പച്ചപ്പ് എന്തുകൊണ്ടും അവർക്ക് എന്തുകൊണ്ടും അത് വളരെ ഇഷ്ടപ്പെടുന്നൊരു കാര്യവാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഓരോ നമുക്ക് ഓരോ സൈഡ്സീയിങ് കണ്ടങ്ങൾ പുഴകൾ പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഉള്ള ഗുണംന്ന് പറയുന്നത് ഇവിടെ മലയാളി തനിമയുടെ ഓരോ പലതരം രുചികൾ നമുക്ക് ടേയ്സ്റ് ചെയ്യാനും അത് കഴിക്കാനും അതവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയും പുതിയൊരു അറിവായിരിക്കും അവർക്കത് ഓരോ നമുക്കോരോ കള്ള് ഷാപ്പ്കൾ വന്നിരുന്നു പലതരം ഫുഡ് ഐയിറ്റംസ് കഴിക്കുകയും അത് ആസ്വദിക്കയും അത് ഓരോരൊ റിസോട്ട്കൾ പിന്നെന്താ ബോട്ട് റൈഡ് അങ്ങനെ കുറെ കുറെ ഒരു വിനോദ രൂപങ്ങൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ പ്രബലമാണ് അതെല്ലാമവർക്ക് ഫോറിനേഴ്സിന് വളരെ ഇഷ്ടവുമാണ്